ചിത്രകല പോലുള്ള കലകൾ കുട്ടികൾക്ക് ആരംഭിക്കാൻ ശരിയായ വയസ്സ് എന്ന് പറയുന്നത് ചെറു പ്രായം മുതലേ അവർ കലകളിലൊക്കേ താത്പര്യം കാണിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് അ ആ പ്രായത്തിൽ തന്നേ അവരെ ചിത്ര രചനയ്ക്കും അതുപോലെതന്നേ ഡാൻസും പാട്ട് എല്ലാറ്റിനും വിടുന്നത് തന്നെയാണ് എന്താ വെച്ചാൽ ചെറുപ്രായത്തിൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ചെറുപ്പത്തിൽ തന്നേ അത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും അവർക്ക് ബ്രയിനിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ എന്താ പറയാൻ അപ്പോൾ ചെറുത ചെറുപ്രായത്തിലെ കൊടുക്കുന്നതാണ് നല്ലത് ഒരു മൂന്ന് വയസ്സ് രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് അതിനോട് താത്പര്യം ഉണ്ടെങ്കിൽ ആ വയസ്സ് മുതലേ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളൊക്കേ വരയ്ക്കാൻ കഴിയും അപ്പോൾ ചെറു പ്രായം മുതലേ കുട്ടികളെ അതൊക്കേ ശീലിപ്പിക്കുന്നതാണ് നല്ലത്